സർ ബോൺസ്റ്റണിൽ നിന്ന് ഡെൻവറിലേയ്ക്കുള്ള നിങ്ങളുടെ വിമാനം ഇപ്പോൾ ഷെഡ്യൂള് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വിളിച്ചതാണ് ഞാൻ കടുത്ത കാലാവസ്ഥ കാലാവസ്ഥയില് എനിക്കെൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ വേണ്ടി പോകേണ്ടതുണ്ട് ഏത് സമയത്താണ് ഷെഡ്യൂള് ചെയ്തിട്ടുള്ളതെന്നും അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരം നിങ്ങൾ യാത്രക്കാർക്ക് പങ്ക് വെക്കുകയാണെങ്കിൽ അവർക്കെല്ലാവർക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ സർവീസുകൾ എപ്പോഴും നമ്മൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് അതിനാൽ ഇതിൻ നിന്നും എൻ്റെ ഈ സംശയത്തിനും നല്ലൊരു മറുപടി ലഭിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു